ഞങ്ങളുടെ പഞ്ചായത്തിലെ പ്രസിഡണ്ടിന്റെ പേര് അടോട്ട് ചന്ദ്രന് എന്നാണ് പിന്നെ അയാൾ കൂടുതല് സമയം തിരക്കിൽ തന്നെയാണ് മൂപ്പരൊരു ഒഴിവില്ലാതെ പിന്നെ ജനങ്ങള്ക്കൊക്കെ വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അയാൾ എവിടെ എന്തുണ്ടെങ്കിലും ഓടിയെത്തും എന്ത് കാര്യത്തിന് വിളിച്ചാലും അയാൾ പാര്ട്ടിക്കോ പരിപാടിക്കോ ഒക്കെ വിളിച്ചാൽ ഏത് തിരക്കാണെങ്കിലും അയാൾ ഓടിയെത്തും ഏത് സമൂഹത്തിനും നാട്ടിലും പിന്നെ ജനങ്ങള്ക്കും ഒക്കെ ഒരു പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാന് പിന്നെ ഞങ്ങളെ പഞ്ചായത്തിന്റെ കീഴില് ഒരു ജെ എസ് എസിന്റെ ഒരു ടൈലറിങ്ങ് കോഴ്സ് പഠിച്ചിരുന്നു അതൊരു മൂന്നുമാസത്തെയൊരു കോഴ്സായിരുന്നു അത് അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങള്ക്ക് അപ്പപ്പോൾ വേണ്ട നിര്ദേശങ്ങളൊക്കെ തന്ന് പിന്നെ ഞങ്ങളുടെ കൂടെ നിന്നിരുന്നയാൾ പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങളുടെ സെന്റെറൊക്കെ സന്ദര്ശിക്കാറും ഉണ്ടായിരുന്നു ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് ലീവാക്കുന്നത് എന്നൊക്കെ ഇടയ്ക്ക് ഫോണ് ചെയ്തിട്ടുമൊക്കെ ഞങ്ങളുടെ ടീചെഴ്സിനോടോക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു അതുപോലെതന്നെ അയാൾ എല്ലാ വാര്ഡിലും ചെന്ന് എല്ലാവരുടെ കാര്യങ്ങളും അയാളെ ഒഴിവിനനുസരിച്ചൊക്കെ എല്ലാ വാര്ഡിലും ചെന്ന് അന്വേഷിക്കുന്ന ഒരാളും കൂടെ ആണ് ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതു തിരക്കാണെങ്കിലും ആരു വിളിച്ചാലും കുറഞ്ഞ സമയത്തിനാണെങ്കിലും അയാൾ ഓടിയെത്തുമായിരുന്നു